റോഡ് ഗുണനിലവാരത്തെപ്പറ്റി പറയുകയാണെങ്കിൽ സംസ്ഥാനത്തിൻ്റെ റോഡ് ഒരു വിധം ചില സ്ഥലങ്ങളിലൊന്നും കുഴപ്പമില്ല ചിലത് കുഴപ്പമുണ്ട് എന്നാൽ തൊണ്ണൂറ് ശതമാനം റോഡ് നല്ല റോഡുകൾ തന്നെയാണ് ഇപ്പോൾ പണി നടന്നു കൊണ്ടിരിക്കുന്നുണ്ട് ഹൈവേ ആയിട്ടും എല്ലാം പണി നടന്നു കൊണ്ടിരിക്കുന്നു പൊതുവെ യാത്ര ചിലവ് കൂടുതലാണ് യാത്ര കൂലി കൊടുത്തിട്ടു തന്നെ ട്രെയിനാണെങ്കിലും ബസ്സിനാണെങ്കിലുമൊക്കെ യാത്ര കൂലി ഇൻഡ്യയിൽ കൂടുതൽ തന്നെയാണ് ഇൻഡ്യയിലിപ്പം ചിലവ് കൂട് കുറവെന്നു പറഞ്ഞാൽ കർണ്ണാടക തമിഴ്നാട്ടിലൊക്കെ ബസ്സ് കൂലി വളരെ കുറവാണ് അവിടെ നമ്മുടെ കേരളത്തിനെക്കാട്ടിലും നല്ല റോഡുകളാണ് എല്ലാം അതു തന്നെയാണ് ബസ്സ് കൂലിയും കുറവാണ് പക്ഷെ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ റോഡും മോശമാണ് വണ്ടി ചിലവും കൂടുതലാണ് ഇന്ത്യയിലെ സംബന്ധിച്ച് പൊതുവെ പറയുകയാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു ഇതാണ് ഇന്ത്യയിൽ മൊത്തം റോഡ് ഒരുവിധം കുഴപ്പമില്ല തൊണ്ണൂറ് ശതമാനം നല്ല റോഡ് തന്നെയാണ് കേരളത്തിൽ പറയുകയാണെങ്കിൽ എഴുപത് ശതമാനം റോഡും നല്ലതാണ് പക്ഷേ അത് വണ്ടിക്കൂലി യാത്ര കൂലി വളരെ കൂടുതലുള്ളൊരു സ്റ്റേറ്റാണ് കേരളം അങ്ങനെ പൊതുവെ ഇന്ത്യ എൺപത് ശതമാനവും തൊണ്ണൂറ് ശതമാനവും റോഡും നല്ല റോഡ് തന്നെയാണ് ഒന്നും കുഴപ്പമൊന്നുമില്ല